ഹലോ ആ പാരഗണ് ഹോട്ടലല്ലേ ഞാൻ പിന്നെ എന്റെ ഫ്രണ്ട്സുമായിട്ട് ഒരു മൂന്നു മണിയാകുമ്പം അവിടെ വരാന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അവിടെ എന്താ അവസ്ഥ ആ സമയത്ത് പിന്നെ ടേബിൾ ഉണ്ടാകുമോ പിന്നെ ആ സമയത്ത് ഉണ്ടാകുന്ന ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് പിന്നെ ഡൈനിങ് ഉള്ളിൽ ഉള്ളിലുള്ള മുകളിലത്തെ എ സി ഡൈനിങ് ഫ്രീ ആയിരിക്കുമോയെന്നൊക്കെ അറിയാന് വേണ്ടി ഞാന് ഒന്ന് വിളിച്ചതായിരുന്നു അപ്പം ഞങ്ങൾ നാല് പേർ അല്ലെങ്കിൽ അഞ്ച് പേരുണ്ടാകും മൂന്നു മണിക്ക് വരാനാണ് ഉദ്ദേശിക്കുന്നത് മൂന്നുമണി ഒരു മൂന്നേകാലാകുമ്പോഴേക്കും എത്തും അപ്പം അവിടത്തെ ഡൈനിങ്ങിൻ്റെയും പിന്നെ സൗകര്യമുണ്ടോ അല്ല അവ ആ സമയത്ത് തിരക്കായിരിക്കുമോ ഇപ്പോഴേ വിളിച്ച് റിസര്വ്വ് ചെയ്യണമോയെന്ന് അറിയാന് വേണ്ടി വിളിച്ചതായിരുന്നു പിന്നെ നാല് നാല് ഞങ്ങൾ നാല് അല്ലെങ്കിൽ അഞ്ച് പേര് അപ്പോൾ ഒരു വലിയ ടേബിളായാലും മതി അഞ്ച് പേര്ക്ക് ഇരിക്കാന് പറ്റുന്ന രീതിയിലുള്ള ടേബിളുണ്ടല്ലോ അത് മതി അപ്പം ഞങ്ങൾ എന്തായാലും ഒരു മൂന്നു മണിയാകുമ്പം വരാം ആ സമയത്ത് തിരക്കുണ്ടാവില്ലായിരിക്കുമല്ലോല്ലേ ഫ്രണ്ട്സ്സാണ് നാല് അഞ്ച് പേർ ഉണ്ടാകും ഞങ്ങൾ ഓക്കേ എന്നാൽ